അതേ എന്തായിരുന്നു

തലയുടെ എവിടെയായിട്ടാണ് ഇടിച്ചത് സ്കാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് തല ഇടിച്ചതുകൊണ്ട് നമുക്കറിയില്ലല്ലോ അകത്തെന്തെങ്കിലും ഇൻജ്വറി ഉണ്ടോയെന്ന് അപ്പോൾ സ്കാൻ ചെയ്യുന്നതാണ് നല്ലത് സ്കാനിംഗ് ഡോക്ടർസ് നാളെ ശനിയും ഞായറും ഇല്ല തിങ്കളാഴ്ച അവൈലബിൾ ആണ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ വന്നിട്ടെടുക്കുമ്പോൾ ടോക്കൺ എടുക്കണം അതിന്റേതായതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ വന്ന് പറഞ്ഞു സ്കാൻ ചെയ്യുമ്പോൾ സമയം പോകില്ല നേരെ റിപ്പോർട്ടും കിട്ടും ഇല്ല ബുക്ക് ചെയ്തിട്ട് വരുന്നവരെ വേഗം സ്കാൻ ചെയ്യും ഇല്ലെങ്കിൽ ടോക്കൺ എടുത്തു നിന്ന് സമയം കുറേ പോകും അല്ല റിപ്പോർട്ട് റിപ്പോർട്ട് വാങ്ങാൻ കൂടിവരുന്ന ആരെങ്കിലും വന്നാൽമതി ആ മൺഡേ വന്നാൽമതി സ്കാൻ ചെയ്ത് ഡോക്ടറിനെ കാണിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ആ ബുക്കിംഗ് ടൈം രാവിലെ തൊട്ട് ആണ് അപ്പോൾ ആ ടൈമിൽ വേണം ബുക്ക് ചെയ്ത് സ്കാൻ ചെയ്യണം ബുക്കിംഗ് ടൈം രാവിലെ

ആ ബുക്കിംഗ് ടൈം രാവിലെ ഒൻപതുമണിതൊട്ട് പന്ത്രണ്ടുമണി വരെയാണ് അതിനുള്ളിൽ

ഷുവർ ബുക്ക് ചെയ്ത് വന്നോളൂ ചെയ്യാം

പെയിൻ കില്ലർ അധികം കഴിക്കണ്ട തലയ്ക്കെന്താണ് പറ്റിയതെന്നറിയാതെ നമ്മൾ പെയിൻ കില്ലെർ കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നതിനുശേഷം ഡോക്ടറെ കാണിച്ച് മെഡിസിൻ കഴിക്കുന്നതായിരിക്കും നല്ലത്